ഇപ്പം പുഴ പുഴയുടെ തീരത്ത് നിന്നും മീൻ പിടിക്കുവാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് കിടക്കുന്ന കുറേ ചുള്ളിക്കമ്പുകളും ചവറുകളും എല്ലാം കൂടി കൊണ്ട് പോയി പപ്പു പോലെ കുട്ടി കുത്തി കൊടുക്കുകയാണെങ്കിൽ അവിടെ തീറ്റയും ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാവിധം മത്സ്യങ്ങളും അതിൽ വന്നുകൂടി മുട്ടയിട്ട് മുട്ടയിടുന്നതായിരിക്കും അത് കഴിയുമ്പോൾ കറുത്ത വാവ് ദിവസങ്ങളിൽ ആ മീനിനെ പിടിക്കുവാൻ നമ്മൾ വലിയൊരു വലയുമായി ചെന്ന് അതിനു ചുറ്റും വലകെട്ടി കഴിഞ്ഞാൽ ഇറക്കം നോക്കിക്കൊണ്ട് അതിലുള്ള മീനുകളെ എല്ലാം നമ്മൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നു അതുപോലെ തന്നെ എളുപ്പത്തിൽ മീൻ പിടിക്കാൻ പറ്റുന്ന വേറൊരു മാർഗ്ഗവും കൂടിയുണ്ട് ഒരു മടലയെ ഓല മടൽ മെടഞ്ഞെടുത്ത് അതിൽ കുറേ ചുള്ളികമ്പുകൾ കയറ്റി വെച്ചിട്ട് ചെറിയ പുഴിയിലേക്കിട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞ് അത് എടുത്ത് കരയിൽ കയറ്റി കഴിയുമ്പോൾ അതിൽ ഇഷ്ടം പോലെ മീനുകൾ കിട്ടുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ചില എളുപ്പത്തിലുള്ള മീൻ പിടുത്തങ്ങളാണ് ഇതിലൂടെ പറയുന്നത് പോകുന്നത് ഏറ്റവും ഏറ്റവും കുറഞ്ഞ സമയങ്ങളിൽ ചെന്ന് നമ്മൾക്ക് മീനിനെ കൈ കൊണ്ട് തപ്പിയെടുക്കാൻ പറ്റുന്നത് നമുക്ക് പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ റിങ്ങ് ഉപയോഗിച്ച് കൊണ്ട് നമ്മൾക്ക് ഞണ്ട് എന്നിവ വരെ പിടിക്കാൻ കഴിയുന്നതായിരിക്കും